വളരെ അധികം ഇൻഫോർമേറ്റീവ് അഥവാ സ്കിൽസ്സ് ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട് പറ്റുന്ന ഗെയിമുകൾ നമ്മളുടെ നമ്മുടെ അടുത്തു തന്നെ ഉണ്ട് അപ്പം അത് കളിക്കുകയാണെങ്കിൽ കുറേ അധികം നന്നായിരിക്കും ഇത് ഇപ്പോൾ റിഫ്ളെക്സ് റെഡിയാക്കാൻ ആയിട്ട് വരെ അധികം ഇത്ര അധികം ഗെയിമുകളുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പിന്നേ ഡിസിഷൻ മേക്കിങ് അതിനൊക്കെ പറ്റിയ ഗെയിമുകളുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വച്ചിട്ട് ഉണ്ടെങ്കിൽ കുറേ അധികം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഭയങ്കര ആ ഗെയിം കളിക്കുമ്പോൾ തന്നെ അവർ അത് അതിൽ നിന്ന് ഓരോന്ന് പഠിക്കുകയും അങ്ങനെ അങ്ങനെ ഒരു നല്ല ഒരു അറിവുകൾ കിട്ടുന്ന കുറേ ഗെയിമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഗെയിമിംഗ് കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ ഇപ്പം അധികം വളരെ അധികം വളർന്നു കൊണ്ടിരിക്കുകയാണ് കുറേ അധികം ആൾക്കാർ ഗെയിമ് കളിച്ചു കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു ജീവിതത്തിൽ രക്ഷപ്പെടുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞാൽ നമ്മൾ സമയം കളയാനായിട്ട് കളിച്ചിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് ഒരു ജീവിതം പോലെയാണ് ചിലവർക്ക്ം അത് പ്രൊഫഷൻ ആണ് ജോലി ആണ് ചിലവരെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് കോച്ചുകൾ ഉണ്ട് അപ്പോൾ അറിവുകൾ പകരുന്ന ആൾക്കാരുണ്ട് ചിലവർ ഗെയിമ് ഗെയിമ് വികസിപ്പിക്കുന്ന ആൾക്കാർ വരെ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ് ഗെയിംങ് ഗെയിമിംങ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ ഇപ്പോൾ പൈസൻ്റെ ആവശ്യമില്ല ഭാഷൻ്റെ ഒരു സീൻ ഇല്ല അങ്ങനെ ഒരു കുഴപ്പം പ്രശ്നങ്ങൾ ഒന്നുമില്ല ആകെയുള്ള പ്രശ്നം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡ് വേണം അപ്പം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഗെയിമിങ് പിന്നെ കുറെ അധികം അവസരങ്ങൾ തേടിയെത്തുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഗെയിമ് കളിക്കുന്നവർക്ക് കുറേ അധികം സംഘടനകൾ പൈസ എറിയുന്നുണ്ട് ഇപ്പോൾ നല്ല ഗെയിമർമാരെ എടുത്തിട്ട് കുറേ ടീം ഉണ്ടാക്കുന്നു കുറേ നല്ല ടൂർണമെൻ്റുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഗെയ്മേഴ്സിനെ സംബന്ധിച്ചു കൊണ്ട് ഇപ്പം കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറേ അധികം കഷ്ടപ്പെടുന്നുണ്ട് സ്കിൽസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ഒന്ന് നമ്മൾ പണ്ട് പണിക്കൊക്കെ പോകുമ്പോൾ കുറേ ഹാഡ്വർക്ക് എന്നൊക്കെ പറയില്ലേ അതേ പോലെ തന്നെ എപ്പോഴും ഗെയ്മിൻ്റെ ഉള്ളിൽ ഹാഡ്വർക്ക് ചെയ്യുന്നവർ വളരെ അധികം ഉണ്ട് പിന്നേ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ മോശമായി നടക്കുന്നത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർഡ്വർക്ക് കൂടുമ്പോഴാണ് വേറെ എവിടേക്കും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന വേറെ കാര്യങ്ങൾ ഒന്നും ഇല്ലാണ്ട് ആരെയും നോ മിണ്ടാണ്ടക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് നിലവാരത്തെ കുറിയ്ക്കുന്നത് കാരണം നമ്മൾ വേറെ ഒരാളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല അരോടുമൊന്നും മിണ്ടുന്നില്ല വർത്തമാനം പറയുന്നില്ല അങ്ങനെ ഒക്കെ വരുമ്പോൾ വളരെ അധികം മോശമായിട്ട് ഇത് നമ്മളെ ഇമ്പാക്ടാകുന്നുണ്ട് അതാണ് ഗെയിമിങ്ങിൻ്റെ ആകെയുള്ള ഒരു ദോഷം പിന്നെ നമുക്ക് ഗെയ്മിങ് ഗെയ്മിൽ തന്നെ കുറെ വെർച്വലായിട്ട് കുറേ കൂട്ടുകാരെ കിട്ടുന്നു അവരോട് ഇടപഴകുന്നു അങ്ങനെ കുറേ കണക്ഷൻസ്സ് കിട്ടുന്നു പിന്നെ ഇത് പ്രൊഫഷണലാക്കാനുള്ള ആൾക്കാർക്ക് പ്രൊഫഷനാവാം പിന്നെ ഇതിനോട് കൂടിത്തന്നെ ഇത് കുറേ അധികം ജോലിയെ സാധ്യതകൾ എന്നു പറയാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ കുറേ സാധ്യതകൾ ഉണ്ട് അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ ഗെയ്മിങ്ങ് എന്നു പറയുന്നത് നല്ല ഒരു ഫീൽഡ് ആണ് മൊത്തത്തിൽ കുറച്ച് നെഗറ്റീവുകളുണ്ടെങ്കിലും ഗേയ്മിങ് കുറച്ച് നല്ല ഒരു ഫീൽഡ് തന്നെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെ